ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കാരണം കാസർഗോഡ് ജില്ലയിൽ പോകുമ്പോൾ അവരുടെ ഭാഷകൾ മനസിലാവാതെ വരും പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ തമിഴ്നാട്ടിലും കന്നടയിലൊക്കെ പോകുമ്പോൾ കർണാടകയിലൊക്കെ പോകുമ്പോൾ കന്നഡ ഭാഷകൾ അറിയാത്ത സാഹചര്യത്തിൽ എന്താ എങ്ങനെയാണ് പറയെണ്ടതെന്നു തിരിയാത്ത വിധത്തിൽ അകപ്പെട്ട് പോയിട്ടുണ്ട് പലപ്പോഴും ഫുഡിനായിക്കോട്ടെ ബാത്റൂമിൽ പോകേണ്ടതായിക്കോട്ടെ എത്തി എന്ത് കാര്യത്തിനും അവിടെ നമുക്ക് ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഭാഷയുടെ പ്രാധാന്യം അപ്പോഴാണ് നമുക്ക് മനസിലാവുന്നത് നമുക്ക് നമ്മുടെ കണ്ണൂർ ഭാഷ അല്ലാതെ മറ്റൊരു ഭാഷയോ പ്രാദേശിക ഭാഷയോ അറിയാത്ത കാരണം പല സ്ഥലത്തും പോകുമ്പോൾ നമ്മൾ പറയുന്ന പേരോ ചിന്തിക്കുന്നതോ ആയിരിക്കില്ല അവർ ചെയ്ത് തരുന്നുണ്ടാവുക നമ്മൾ പറയുന്നതായിരിക്കില്ല അവർ ചിലപ്പോൾ കേൾകുന്നുണ്ടാവുക അവർക്ക് മനസിലാവുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് തെറ്റിദ്ധരിക്കപെട്ടിട്ടുണ്ട് പലതും സംഭവിച്ചത് ഈ ഭാഷയുടെ പേരിലാണ്